ആദ്യമായി ഞാൻ എന്നെ കല്യാണം കഴിച്ച് എൻ്റെ കെട്ട് വീട്ടിൽ വന്നപ്പം എനിക്ക് എല്ലാ തരത്തിലുള്ള പാചകങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു അപ്പോൾ എൻ്റെ അമ്മച്ചിയാണ് എനിക്ക് എല്ലാം പറഞ്ഞ് തന്ന് ഓരോ സാധനം എടുക്കുമ്പോഴും അതിൻ്റെ കണക്കിനുള്ള കൊ ചേരുവകളെല്ലാം എടുത്ത് തന്നത് അമ്മച്ചിയാണ് അങ്ങനെയാണ് ഞാൻ പാചകം പ് ചെയ്യാൻ പഠിച്ചത് അ എല്ലാ കാര്യങ്ങളും എനിക്ക് എൻ്റെ അമ്മച്ചി പറഞ്ഞു തരുമായിരുന്നു അങ്ങനെ എല്ലാ കറികൾക്ക് കറികൾക്കൊക്കെ വേണ്ട സാധങ്ങളെത്രത്തോളം വേണമെന്നും അതുപോലെ ഒരു നല്ലപോലെ പച്ചക്കറി അരിയാനോ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അതിന് അതുപോലെ അരി ഇപ്പം കഞ്ഞി വെക്കണമെങ്കിൽ എത്ര അരി ഇത്രപേർക്ക് എത്ര അരി ഇടണമെന്നോ അങ്ങനെ ഒന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു അതെല്ലാം എൻ്റെ അമ്മയാണ് പറഞ്ഞത് ചുരുക്കം കഞ്ഞി വാർക്കാൻ പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു അ അങ്ങനെ അമ്മച്ചി പറ അമ്മച്ചിയാണ് എന്നെ ഈ പാചകം പഠിപ്പിച്ചത് പിന്നെ ഇപ്പോൾ ഇപ്പം ആയപ്പം എനിക്ക് എല്ലാ എല്ലാ ഭക്ഷണങ്ങളും തയ്യാറാക്കാൻ തയ്യാറാക്കാനും കറികളൊക്കെ ആണെങ്കിൽ നല്ല രീതിയിൽ വെക്കാനും ഒക്കെ എനിക്ക് ഇപ്പം അറിയാം ഇപ്മ്മ് എല്ലാവരും പറയും നല്ല ഭക്ഷണമാണെന്ന് പറയും